ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ കുടുംബങ്ങളിലോ തന്നെ ആർക്കെങ്കിലും ഈ കായിക ഇനത്തില് പരിശീലനം ലഭിക്കുന്നതുണ്ടെങ്കില് അടുത്തുള്ള അക്കാഡമിനെ സമീപിക്കുക നമ്മുടെ വീടിൻ്റെ അല്ലെങ്കി പരിസരത്തുള്ള അക്കാഡമിയെ പരി സമീപിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അവര് പറയുന്നതായിരിക്കും പിന്നവിടെ ഈ തരത്തിലുള്ള പരിശീലനം ലഭിക്കും ഇവിടെ പോയാൽ ഈ കായിക ഇനത്തിന് പരിശീലനം ലഭിക്കുംന്നുള്ളത് അവര് പറഞ്ഞു തരും അല്ലാന്നുണ്ടെങ്കില് നമ്മള് സ്പോർട്സ് സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ ആസ്ഥാനുണ്ടാവും നമുക്ക് അവിടെപ്പോയിട്ട് അന്വേഷിച്ചാലും ഇതിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും